ഹലോ ഞാൻ പിന്നെ ഇവിടെ നിന്ന് വിളിക്കുന്നയാണേ നമ്മൾ ബേപ്പൂരിൽ നിന്ന് എപ്പോഴാണ് വിളിക്കുന്നേ ആ ഓക്കേ അപ്പോൾ അവിടെയിപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ ആ അതേ അതേ ആ നമുക്കൊരു അൽഫാം മന്തിയാണ് വേണ്ടത് ഒരു പത്ത് പേർക്ക് കഴിക്കാൻ പാകത്തിന് ആ അതും പിന്നെ എന്തെങ്കിലും സ്റ്റാർട്ടർ എന്തെങ്കിലും സ്റ്റാർട്ടറായിട്ട് എന്തെക്കെയാണ് ഉള്ളത് ചിക്കൻ ലോലിപോപ്പ് അല്ലേ ഉം എന്നാൽ അതും ഒരു പത്ത് പേർക്ക് കഴിക്കാൻ വേണ്ടി പത്ത് പീസ് മതി ഉം ഓക്കേ അപ്പോൾ അല്ല അല്ല നമ്മളിപ്പോൾ അവിടെ നിന്ന് മാറി അതുംകൂടി പറയാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് നമ്മളപ്പോൾ കാപ്പാടു നിന്ന് മാറി ഒരാഴ്ചയായി അപ്പോൾ ആ വിലാസത്തിലല്ലാട്ടോ വേണ്ടത് ആ അതേ അതേ അപ്പോൾ നമ്മളിപ്പോൾ ബേപ്പൂരിലേക്കാണ് മാറിയത് അപ്പോൾ ബേപ്പൂരിലെ വിലാസത്തിലേക്കാണ് നമുക്ക് അയച്ചു താരണ്ടത് ആ അതെ അപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് അയക്കുമോ എന്നാൽ നിങ്ങൾ ആ ഞാൻ അത് വാട്സപ്പ് ചെയ്യാം ആ ഓക്കേ